ഹലോ ഇത് പഴത്തിൻ്റെ പീടികയല്ലേ അവിടെ ആപ്പിളും ചക്കപ്പഴവും ഉണ്ടോ എത്ര പൈസയാകും

തേൻ വരിക്കയാണോ അപ്പോൾ നല്ല സാധനം തന്നെയാണോ അതെ ഇപ്പോൾ ചക്ക സീസൺ അല്ലല്ലോ അതുകൊണ്ട് ചക്ക നല്ല ചക്ക തന്നെയാണോ

അപ്പോൾ നിങ്ങൾക്ക് സാധനം ഇങ്ങോട്ട് കൊണ്ടുതരാൻ പറ്റുമോ നമ്മളിത് രണ്ട് കിലോ മെറ്റിനടുത്തുന്നുണ്ടാവും

ആ ആ ആ അതെ ഇപ്പം രണ്ടണ്ണെ വേണ്ടൂ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം വേണോ ഇപ്പോഴിത് സാധനം നല്ലതാണ് നോക്കിയിട്ട് പിന്നെ വന്നിട്ട് സാധനം എടുക്കാം അപ്പോൾ നല്ല നല്ല ചക്കപ്പഴം കിട്ടണം ഓ നല്ല തേൻ വരിക്ക ചക്കയാണ്

നമുക്ക് നല്ല സാധനം തന്നെയാണ് വേണ്ടത് ഒരുപാട് സാധനങ്ങൾ പിന്നെ വെ വേണം ആ എന്നാൽ ശരി ഞാൻ വിളിക്കാം